കണ്ണൂര് ജില്ലയിലെ ഒരു പ്രശസ്ഥമായ വിനോദ സഞ്ചാര കേന്ദ്രമാണ് പയ്യാമ്പലം ബീച്ച് പയ്യാമ്പലം ബീച്ച് ഒരു നല്ല രീതിയില് പരിപാലിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം കുടുംബത്തോടു കൂടി വിനോദയാത്രയ്ക്ക് ആസ്വദിക്കാന് പറ്റിയ ഒരു വിശ്രമസ്ഥലം കൂടിയാണ് ചെറിയ സാഹസികത ആഗ്രഹിക്കുന്നവര്ക്ക് നീന്തല് സൗകര്യം അതുപോലെ തന്നെ സര്ഫിംഗ് എന്നിവയെല്ലാം ലഭ്യമാണ് കണ്ണൂരിലെ ഏറ്റവും അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് ഇത് ധാരാളം വിനോദ സഞ്ചാരികളെ ആകര്ഷിക്കുന്നുണ്ട് ഒഴിവ് സമയങ്ങളിലെല്ലാം കുടുംബത്തോടൊപ്പവും അതുപോലെ തന്നെ കൂട്ടുകാരോടൊപ്പവും എല്ലാം ധാരാളം ആളുകള് വിവിധ ജില്ലകളില് നിന്നും ഇവിടെ വിനോദ സഞ്ചാരത്തിനായി എത്തിച്ചേരാറുണ്ട് വൃത്തിയായി പരിപാലിക്കുന്നതു കൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ അന്തരീക്ഷ മലിനീകരണത്തിനുള്ള സാധ്യതയും വളരെ കുറവാണ്